വിദ്യാഭ്യാസം പരമ്പരാഗത ആചാരങ്ങളെ ബാധിച്ചിട്ടുണ്ടോയെന്നു ചോദിച്ചാൽ ബാധിച്ചിട്ടുണ്ടെന്നു പറയാം കാരണം പണ്ടത്തെ കാലത്തെന്നൊക്കെ പറയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ആള് ഇന്ന ജോലി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന ജോലി അതായത് ബാർബർ പണിക്കാർ എന്നും ബാർബർ പണിക്കാരൻ തന്നെ അല്ലെങ്കിൽ മീൻസ് ഒരുപാട് ജോലികളുണ്ട് അല്ലെങ്കിൽ കുറേ കുറേ മേല മേഖലകളുണ്ടെന്നുള്ളത് ആർക്കും അങ്ങനെ അറിയി അറിയുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ചെറിയ ചെറിയ ചുരുങ്ങിയ എത്ര മീൻസ് സാലറി ഒന്നും കിട്ടാത്ത അല്ലെങ്കിൽ ചുരുങ്ങിയ എല്ലാവർക്കും ആവശ്യമുള്ള അങ്ങനത്തൊരു മീൻസ് ഇപ്പോഴും എന്താ സ്വർണ്ണപ്പണിക്കാരൻ അങ്ങനെയൊക്കെ കുറച്ച് ആൾക്കാർ മാത്രമുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഈ വിദ്യാഭ്യാസം വന്നതിനു ശേഷം ഒരുപാട് മേഖലകൾ നമുക്ക് തുറന്നു തന്ന് അപ്പം തന്നെ ഈ ബാർബർ അതിൽ നിന്നൊക്കെ ആൾക്കാർ ഇങ്ങനെ മാറലൊടങ്ങി അത് വേറെ ബാർബറെന്നന്നെ വേറെ വേറെ പല പല രീതികളിലേക്കു മാറൽ തുടങ്ങി അതുപോലെ തന്നെ വിദ്യാഭ്യാസം കൊണ്ട് ഏറ്റവും വലിയ ഇത് ഉണ്ടായതെന്നെന്നുവെച്ചാൽ ശൈശവ വിവാഹം അതൊക്കെയാണ് കാരണം പണ്ടത്തെ കാലത്ത് പറയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ പതിനഞ്ച് പന്ത്രണ്ട് വയസ്സാകുമ്പോൾ തന്നെ അല്ലെങ്കിൽ പ്രായപൂർത്തി ആകുമ്പോൾ തന്നെ കുട്ടികളെ കെട്ടിച്ചു വിടുക എന്നുള്ളൊരു സമ്പ്രദായമായിരുന്നു അത് ഒരു പരമ്പരാഗത രീതിയായിരുന്നു എല്ലായിടത്തും ഉണ്ടായിരുന്നു ആ ഒരു സംഭവം അതായത് കുട്ടികൾ മീൻസ് പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ എന്താ മീൻസ് പ്രായപൂർത്തിയായിയെന്നു അവരറിഞ്ഞാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം തന്നെ കല്യാണം അല്ലെങ്കിൽ ശൈശവവിവാഹം ചെറിയ കുട്ടികളാകുമ്പൊതന്നുള്ള കല്യാണം ഇതൊക്കെയൊരു പാരമ്പരാഗത രീതിയായിരുന്നു എല്ലായിടത്തും പക്ഷെ വിദ്യാഭ്യാസം വന്നതിനു ശേഷം പതിനെട്ട് വയസ്സ് എന്നുള്ളൊരു സംഭവം അവിടെ വന്നു മീൻസ് പതിനെട്ട് വയസ്സിനു ശേഷം അല്ലെങ്കിൽ പതിനെട്ട് വയസ്സു കഴിഞ്ഞതിനു ശേഷം ഇങ്ങനൊരു ഇത് വന്നതു കൊണ്ടു തന്നെ അത് വലിയൊരു പുരോഗമനാണ് കാരണം അന്നത്തെ കാലത്ത് മീൻസ് എന്തൊക്കെയാണ് എങ്ങനെയാണ് എന്നൊന്നുള്ളത് അറിയില്ലായിരുന്നു വിദ്യാഭ്യാസം കൊണ്ട് ഒരുപാട് മേഖലകളിൽ ഒരുപാട് ഗുണങ്ങളുണ്ടായിട്ടുണ്ട് ഒരുപാട് പരമ്പരാഗത ആചാരങ്ങളെ മാറ്റി നിർത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ പണ്ടത്തെ കാലത്തെന്നു പറയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക ഭയങ്കര അന്ധവിശ്വാസം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതെന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്നൊക്കെ ഒരുപാട് വിദ്യാഭ്യാസം വന്നതിനു ശേഷം ആളുകൾ ചിന്തിച്ചു തുടങ്ങി ഇതൊക്കെ ഇങ്ങനെയാണോ ഇതൊക്കെ അങ്ങനെയാണോ എന്നുള്ള സംഭവം ആൾക്കാർ ചിന്തിച്ചു തുടങ്ങി അതു കൊണ്ടു തന്നെ അതിൽ നിന്ന് ഒരുപാട് മുക്തി എല്ലാവർക്കും വന്നിട്ടുണ്ട് വിദ്യാഭ്യാസം കാരണം